എനിക്ക് എറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ചോറും കറികളുമൊക്കെയാണ് മലയാളികളായതുക്കൊണ്ടാണോ എന്താണെന്നറിയില്ല എനിക്ക് കൂടുതലും അധികം മലയാളികൾക്കു കൂടുതലും ചോറും കറികളോടുമാണല്ലോ താൽപര്യം അതുകൊണ്ടാണോ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ അത് കഴിക്കുന്നത് കൊണ്ടാണോ എന്താണെന്നറിയില്ല ചോറും കറികളോടും തന്നെയാണ് കൂടുതലും താൽപര്യം അതിൽ കൂടുതലും ഇഷ്ടം മറ്റേ ചോറും മീൻകറിയുമാണ് ഏതു മീനാണെങ്കിലും കുഴപ്പില്ല പക്ഷെ മുളകിട്ടു വറ്റിച്ചെടുക്കുന്ന മീനോടാണിഷ്ടം പിന്നെ മീൻ അതിൻ്റെ കൂടെ മോരുകറി അച്ചാറ് ചമ്മന്തി അങ്ങനെ ഉണ്ടെങ്കിൽ കൂടുതൽ ഇഷ്ടത്തോടെ കഴിക്കാൻ താല്പര്യവും അതാണ് കൂടുതലും പാചകം ചെയ്യാനും ഇഷ്ടം അതു തന്നെയാണ് വേറെ എന്താണെന്നുവെച്ചാൽ വേറേ ഭക്ഷണം വേറെ എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമല്ലാത്ത ഭക്ഷണം എന്നൊന്നും എടുത്തുപറയാനായിട്ട് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാ ഭക്ഷണത്തോടും താല്പര്യമാണ് പിന്നെ എന്താണെന്നുവച്ചാൽ ബിരിയാണി ആണെങ്കിലും ഇഷ്ടമാ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്തു നോക്കുന്നതും ഇഷ്ടമാണ് എല്ലാ സ്ഥലത്തെയും വെറൈറ്റി ഫുഡുകളും കഴിച്ചുനോക്കാൻ താല്പര്യപ്പെടുന്നതാണ് പിന്നെ വേറേ പിന്നെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം എന്താണെന്നുവെച്ചാൽ ചോറ് സാമ്പാറും സാമ്പാറും പപ്പടവും ഉപ്പേരിയും എല്ലാം കൂട്ടീട്ട് പപ്പടവും എല്ലാം കൂട്ടി കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്